ഹലോ ആ ഹലോ എനിക്ക് ആ എനിക്ക് ഒരു രണ്ടു മൂന്നു ദിവസമായിട്ടു ഭയങ്കര പനിയും ജലദോഷവുമുണ്ട് പിന്നെ നല്ല ശരീരവേദനയും കാലിലൊക്കെ ഭയങ്കര ഒരു ബലക്കുറവുപോലെ തോന്നിക്കുന്ന എന്തോ ഒരു ഇതുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒന്നു രണ്ട് ഗുളികകൾ കഴിച്ചു നോക്കി ഗുളിക ഞാൻ കഴിച്ചത് ചെറിയ പാരസെറ്റമോള് പോലത്തെ അങ്ങനത്തെ ഒന്നു രണ്ടു ഗുളികയൊക്കെ കഴിച്ചു ആ പക്ഷെ അത് നോർമലായിട്ടുള്ള ആണെന്നുള്ള ഉദ്ദേശത്തിലങ്ങ് കഴിക്കും അതാണ് ആ ഷുഗറുണ്ട് പ്രഷറില്ല ഷുഗർ മാത്രമേയുള്ളൂ കൊളസ്ട്രോളുമില്ല അലല്ല ഓ എനിക്കിപ്പം ഒരു പനി ഓ അങ്ങനെയൊന്നും ഒന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ നമുക്ക് കുറച്ചു മാറും കുറച്ചു നോർമലാണെന്ന് പോലെ തോന്നിക്കും ജലദോഷമുണ്ട് ജലദോഷം ഉണ്ടെന്നുമല്ല ഉണ്ട് പക്ഷെ അത്ര ജലദോഷമില്ല പക്ഷെ അത് പക്ഷെ അത് സോൾവ് ചെയ്യാവുന്നതേയുള്ളൂ പക്ഷെ വിശപ്പോ വിശപ്പുണ്ട് വിശപ്പൊക്കെയുണ്ട് ആ ഓക്കെ ഒക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി അതുപോലെ ചെയ്യാം